എൻ്റെ മാതൃഭാഷ മലയാളമാണ് എൻ്റെ ഭാഷയിൽ അതായത് മലയാളത്തിൽ ഒരുപാട് ഒരുപാട് വാർത്താചാനലുകൾ സുലഭമായിട്ടു തന്നെയുണ്ട് വാർത്താ ചാനലുകൾ ഇപ്പം മാതൃഭാഷയിൽ തന്നെ കണ്ടാലുള്ള ഗുണം അല്ലെന്നുണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു കാര്യം നമ്മുടെ മാതൃഭാഷയിൽ നമുക്കു പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമുക്കു കൂടുതൽ മനസ്സിലാകും അതു പോലെയാണ് വാർത്തകളും വാർത്തകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് വാർത്തകളുണ്ട് ലോകമെമ്പാടുമുള്ള ഒരുപാട് വാർത്തകൾ വാർത്താ ചാനലുകളിലൂടെ നമ്മൾ അറിയുന്നുണ്ട് ആ സമയത്ത് നമ്മൾക്ക് നമ്മുടെ മാതൃഭാഷയിൽ തന്നെ കേട്ടുകഴിഞ്ഞഴിഞ്ഞാൽ ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റും അത് നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റും വേറെയൊരു ലാംഗ്വേജിലാണ് വേറെ ഒരു ഭാഷയിലാണ് അതു കേൾക്കുന്നതെങ്കിൽ ഇപ്പോൾ ഇംഗ്ലീഷിലോ ഹിന്ദിയിലൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കു മലയാളത്തിൽ കേൾക്കുമ്പോൾ അതു മനസ്സിലാകും അത് ഉള്ളിൽ പതിയുന്നുണ്ട് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ കേട്ടു കഴിഞ്ഞാൽ അത് അപ്പോൾ കേട്ട് അതങ്ങു കളയും അങ്ങനെ ഉണ്ടാവ് ഉണ്ടാകാറുള്ളത് ഇപ്പോൾ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയണം എന്നില്ല എല്ലാവർക്കും ഹിന്ദി അറിയണമെന്നില്ല എല്ലാവർക്കും മലയാളം അറിയണമെന്നില്ല തമിഴ് അറിയണമെന്നില്ല അപ്പോൾ അവർ അവരവർക്ക് അവരുടേതായിട്ടുള്ള ഇപ്പോൾ മലയാളികൾക്ക് മലയാളം ആ ഹിന്ദിക്കാർക്ക് ഹിന്ദി സംസാരിക്കുന്ന അവരുടെ മാതൃഭാഷയായിട്ടു ഹിന്ദി സംസാരിക്കുന്നവർക്കു ഹിന്ദി ചാനൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർക്ക് ഇംഗ്ലീഷ് ചാനൽ അങ്ങനെ വരുമ്പോഴത്തേക്കും കൂടുതൽ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കും ആ ഭാഷ മുഖേന കൂടുതൽ ആ ആളുകളിലേക്ക് ആ വാർത്തകൾ എത്തും അതു കൊണ്ടാണ് ഏറ്റവും കൂടുതലാളുകൾ ഇഷ്ടപ്പെടുന്നത് സ്വന്തം മാതൃഭാഷയിൽ തന്നെ വാർത്താ ചാനലുകൾ കേൾക്കാനായിട്ട് അതു പോലെ തന്നെ വേറെ പ്രധാനപ്പെട്ടൊരു കാര്യമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു കാര്യം സംസാരിക്കുമ്പോഴും നമ്മുടെ മാതൃഭാഷയിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മറക്കാറില്ല അതു ഞാൻ നേരത്തെ പറഞ്ഞതു പോലെ തന്നെ നമ്മടെ ഓർമ്മയിലത് സൂക്ഷിക്കാൻ പറ്റും ലോകമെമ്പാടുമുള്ള വാർത്തകളാകുമ്പോൾ അതു നമുക്ക് ഭാവിയിൽ ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും കാരണം ഈ ജി കേ കൊസ്റ്റൻസായിട്ടും പലതായിട്ടും ഈ വാർത്തകളിൽ നിന്നാണ് വരുന്നത് അപ്പോൾ കൂടുതലും നമുക്കു പഠിക്കാൻ പറ്റും ഓരോ കാര്യങ്ങൾ കൂടുതൽ പഠിക്കാൻ പറ്റും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ മാതൃഭാഷയിൽ തന്നെയാണ് വാർത്താ വാർത്ത കേൾക്കുന്നത് കാണുന്നത് എങ്കിൽ ഇപ്പോൾ വായിക്കുന്നതാകട്ടെ പത്രം വായിക്കുന്നതാകട്ടെ ഇല്ലയെന്നുണ്ടെങ്കിൽ മാധ്യമത്തിൽ കാണുന്നതാണ് ടീ വിയിൽ ടെലിവിഷനിൽ നമ്മൾ കാണുന്നതാകട്ടെ നമ്മുടെ മാതൃഭാഷയിൽ ആയികഴിഞ്ഞാൽ കൂടുതലും നമുക്കത് ഉൾകൊള്ളാൻ സാധിക്കും